നമുക്ക് മലയാള ഭാഷയിൽനിന്നോ അല്ലെങ്കിൽ മലയാള ഭാഷയിലേക്കോ വിവർത്തനം ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ കുട്ടിക്കാലത്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അവർക്ക് അവർക്കുവേണ്ടിയിട്ട് കഥകളൊക്കെ വായിച്ചുകൊടുക്കുന്ന സമയത്ത് പിന്നെ ഇംഗ്ലിഷിലുള്ള കുഞ്ഞു കുട്ടിക്കഥകളൊക്കെ നമ്മൾ വായിച്ചിട്ട് അത് മലയാളത്തിനായിട്ട് മലയാളത്തിലാക്കി കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കേണ്ട സാഹചര്യം നമുക്ക് വന്നിട്ടുണ്ട് അതൊക്കെ വളരെ ഇൻട്രസ്റ്റിങ്ങ് ആയിരുന്നു നമുക്ക് നല്ലൊരു നല്ലൊരു അനുഭവം തന്നെയാണ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കുറേ വാക്കുകളുടെ അർഥങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവാതെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് ഏതെങ്കിലും ഡിഷ്ണറികളൊക്കെ നോക്കി അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി അർത്ഥങ്ങൾ മനസ്സിലാക്കി കൂട്ടി ചേർത്തു കൃത്യമായ കഥാ തന്തുക്കളാക്കി അത് കുട്ടികൾക്ക് വായിച്ചു കേൾപ്പിച്ച് പറഞ്ഞുകൊടുക്കുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ട് അതൊക്കെ നല്ല നല്ല നല്ല അനുഭവങ്ങളാണ് പിന്നെ വേറെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ ഏതെങ്കിലും പാഠ ഭാഗത്തിനകത്തൊക്കെ ട്രാൻസിലേറ്റ് ചെയ്യാൻ ആയിട്ട് നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മളുടെ കഴിവിൻ്റെ മാക്സിമം നല്ല രീതിയിൽ തന്നെ നോക്കി എഴുതിയിട്ട് എഴുതി അതിന് വേണ്ട അത്ര മാർക്കുകളൊക്കെ സ്കോറ് ചെയ്യാൻ ആയിട്ടൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്